എൻ്റെ സ്ഥലത്തെ കലകളും കരകൗശലമെല്ലാം എൻ്റെ സ്ഥലത്തല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ വീട്ടിൻ്റെ വേറൊരു ടൗണിലാണ് അപ്പോൾ അവനൊരുപാട് ഇപ്പോൾ അവൻ്റെ ഉപ്പാക്കൊക്കെ പിന്നെ ഈ വർക്ക് ഷോപ്പാണ് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ വണ്ടീൻ്റെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവൻ അതിനെക്കൊണ്ട് റീക്രിയേറ്റ് ചെയ്യും ഓരോ മോഡലുകൾ എന്നു വച്ചാൽ സൈക്കിള് അതുപോലെ ബോട്ട് അതുപോലെ മനുഷ്യർ പിന്നെ കുന്ന് അതൊക്കെ അവൻ ഓരോ രൂപങ്ങളുണ്ടാക്കാറുണ്ട് അപ്പോൾ ഒരുപാട് രൂപങ്ങൾ കാറ് ആ ചെറിയൊരു ചെറിയ വേസ്റ്റായ സാധനങ്ങൾ കൊണ്ടവൻ ഇതുപോലുള്ളൊരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാക്കാറുണ്ട് അത് ഓരോ യൂട്യൂബ് ചാനലിലൊക്കെ വന്നിട്ടുണ്ട് അത് എന്നു വച്ചാൽ അവൻ്റെ ഈ കല കണ്ടിട്ട് അവൻ എക്സിബിഷൻ നടത്താറുണ്ടായിരുന്നു ഇപ്പോൾ എവിടെയെങ്കിലും എക്സിബിഷനുണ്ടെങ്കിൽ അവൻ ഉണ്ടാക്കിയ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ എക്സിബിഷൻ നടത്താറുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അത് ഫെയിമസ്സായിട്ട് ഓരോ യൂട്യൂബ് ചാനലിലെ ആൾക്കാരവൻ്റെ വീട്ടിലേയ്ക്ക് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണിച്ച് കാണിക്കുകയും പിന്നെ അവൻ ഒരുപാട് ഏതൊരു ഡയറക്ടർ വരെ വന്നിട്ട് പിന്നെ കണ്ടിട്ടുണ്ട് യൂട്യൂബ് ചാനലിനാണ് കൂടുതൽ കണ്ടിട്ട് സിനിമകളിലൊന്നും വന്നിട്ടില്ല പക്ഷേ യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് വന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് ഓൻ അവൻ്റെ ഒരു ക്രീയേറ്റിവിറ്റിയാണ് ഒരുപാട് കാര്യങ്ങൾ അവൻ അത് കാണുമ്പം തന്നെ നമ്മൾക്ക് എങ്ങനെയാണ് അതുണ്ടാക്കിയതെന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് വരും അതുപോലുള്ള ഓരോ രൂപങ്ങളാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയതവൻ